പത്തനംതിട്ട ജില്ലാ ആഘോഷങ്ങളിലും സാംസ്കാരിക ഉത്സവ പരിപാടികളും എന്നും മുൻപന്തിയിൽ തന്നെയാണ് മറ്റു ജില്ലകളെ മാറ്റി നിർത്തി പത്തനംതിട്ട ജില്ലക്ക് മാത്രമായുള്ള വിവിധ ആഘോഷങ്ങളാണ് ആറന്മുള വള്ളംകളി കടമ്മനിട്ട പടയണി മാരാമൻ കൺവെൻഷൻ ആറന്മുള വള്ളസദ്യയാണ് ഏറ്റവും സ്വാദേറിയ വള്ളസദ്യ എന്ന് പലരും പറയപ്പെടുന്നു കടമ്മനിട്ട പടയണി പടയണികളിൽ ഏറ്റവും വലിയ പടയണിയാണ് കടമ്മനാട്ടെ പടയണി മാരാമൻ കൺവെൻഷനും അതുപോലെ തന്നെ ആണ് വള്ളംകളി സദ്യയിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ വിഭവങ്ങളുള്ളത് ആറന്മുള വള്ളസദ്യയിലാണ് കടമ്മനാട്ട് പടയണി രണ്ടാമത് ഏറ്റവും കേരളത്തിലെ ഏറ്റവും